ഇത് മറ്റെ റഹ്മത്ത് ഹോട്ടൽ തന്നെ അല്ലെ ഞാൻ അവിടുന്നൊരു ബിരിയാണി ഓർഡർ ചെയ്തിന് ആണ് ഇല്ല ഇപ്പളും കിട്ടീട്ടില്ല എത്ര നേരായി ഓർഡറ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം തീരെ ഒര് ഉത്തരവാദിത്തം ഇല്ലേ നമ്മൾ എത്ര ടൈമ് ചിലവാക്കിയേക്കുന്നതാണ് ഇത് എന്തുന്നാണ് കളിക്കുന്നത് എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും കാര്യം അപ്പപ്പം കിട്ടണം ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ഈ ബ്ലോക്കും ബ്ലോക്കും പറഞ്ഞ് നിക്കുവാ നീ എന്താ ഇത് കളിക്കിന്ന് നമ്മൾ എല്ലം വിശന്ന് ചാവും നമുക്ക് വേറെ എന്തൊക്കെ സംഭവങ്ങള് ചെയ്യാൻ ഉണ്ട് കുറച്ച് ബിരിയാണി ഓർഡർ ചെയ്ത് ഇത് എത്ര മണിക്കൂറാന്നാ പോകുന്നേ എന്തിന്നാന്ന് ബ്ലോക്ക് ബ്ലോക്ക്ന്ന് പറയല്ലെ ഞാൻ പറയട്ടെ ബ്ലോക്ക് ബ്ലോക്ക്ന്ന് പറയല്ലെ എന്ത് ബുദ്ധിമുട്ട് അങ്ങന പറഞ്ഞിട്ട് ഒന്ന് കാര്യം ഇല്ല നമ്മള് നമ്മൾ ഒര് ഗസ്റ്റ് വന്ന് ഫുഡ്ഡ് വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ഫുഡ്ഡ് ഇല്ല നമ്മൾ എന്താ ചെയ് നീ എന്തിന് ഇമ്മാതിരി